ഹലോ ആ അതെ എന്തായിരുന്നു

ആ ഏത് ക്യാറ്റായിരുന്നു ആ ആഹ് ഓക്കേ ആ നിങ്ങളെന്തായിരുന്നു ഫുഡ് കൊടുത്തത്

ആഹ് അല്ലാതെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കൊടുത്തിരുന്നോ ആ ഓക്കെ രോമം കൊഴിച്ചൽ അങ്ങനെന്തെങ്കിലും ഉണ്ടോ ആ ഓക്കേ ശർദി അങ്ങനെന്തേലും ഉണ്ടോ കക്കുകയോ എന്തേലും ചെയ്യുന്നുണ്ടോ ആ ആ ആ വേറെന്തെങ്കിലും ആഹ് ആക്റ്റീവ് അല്ലല്ലേ ഓക്കേ ഞാനിപ്പോൾ തൽകാലം ഒരു മരുന്നെഴുതി തരാം അത് കൊടുക്കണ്ടെന്ന് വെച്ചാൽ തുള്ളി മരുന്നാണ് അത് കൊടുക്ക് അത് ഒരു ദിവസം കൊടുത്താൽ മതി കുടിച്ചിട്ട് കുറവില്ലെങ്കിൽ പിറ്റേ ദിവസം എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ട് വരണം ആ ഒറ്റ നേരം കൊടുത്താൽ മതി ആ കിട്ടും ആ എഴുതി തരുന്നത് കാണിച്ച് കൊടുത്താതി അവർ തന്നോളും അന്നിട്ട് കുറവില്ലെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടരണം ആ ഉണ്ടാവും

ഏ ലീവൊന്നൂല്ല കുറവില്ലെങ്കിൽ എന്തായാലും വാക്സിനെടുക്കണം ആണോ അതെന്തിൻ്റെ ആയിരുന്നു എടുത്തത് ഇവിടെന്നല്ലല്ലോ എടുത്തത്

ആ ഓക്കെ ആ മതി മതി ഇപ്പോൾ ഞാൻ ഈ തരുന്നത് കൊടുത്തുനോക്ക് കേട്ടോ ആ ആ ഓക്കെ ആ ശരി